ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള കഴിവുകൾ കാര്യങ്ങൾ ഉണ്ട് കാരണം ചിത്രം വരയ്ക്കാനുള്ള കഴിവ് പിന്നെ ഡ്രൈവിങ്ങിനുള്ള കഴിവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് വികസിപ്പിച്ചതെങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കഴിവ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരോ ചിത്രം വരയ്ക്കുമ്പോഴും അതിന്റേതായ രീതിയിൽ രീതിയിലും കാര്യങ്ങൾക്കൊക്കെ വരച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടാൻ കിട്ടും അപ്പം അതൊക്കെ ആണ് മെയിൻ ആയിട്ട് പിന്നെ ഡ്രൈവിങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രെയ്സ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസമാണ് നമുക്ക് വണ്ടി എടുത്തിട്ട് ഓരോ ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഡ്രൈവിങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് അതങ്ങനെ വലിയ എന്താണ് പറയുക മടുപ്പോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല കാരണം എന്താണ് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഡ്രൈവ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതിന് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുപാടാനുള്ളൊരു കഴിവ് എനിക്കുണ്ട് അപ്പം പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ കഴിവുകൾ കൂടുതലായിട്ടും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ട്രെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് പാടാൻ വേണ്ടി കഴിയുന്നതാണ്